നീന്തുമ്പോൾ ചെവിക്കാണ് ഏറ്റവും അധികം പ്രശ്നം ചെവിയിൽ വെള്ളം കേറുക അത് കൊണ്ട് ചെവി അടച്ച് കെട്ടണം എന്ന് രീതിയിലുള്ള വേഷം തൊപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുക കണ്ണടയത് കണ്ണിൻ്റെ ചുറ്റും കണ്ണിൽ വെള്ളം കടക്കാത്ത രീതിയിലുള്ള കണ്ണട ഗ്ലാസ് ഉപയോഗിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിലുപരി ഈ കണ്ണട കറക്റ്റായിട്ട് വീണ് കഴിഞ്ഞാൽ മീൻ വന്ന് കൊത്താനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനൊക്കെ അനുസരിച്ചുള്ള തൊപ്പി കണ്ണടയൊക്കെ ഇപ്പോൾ കമ്പോളത്തിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട് അത് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നീന്തൽ നടത്തുന്നത് സാധാരണ കുറച്ച് സമയം നീന്തുന്നുണ്ടെങ്കിലും നീന്തൽ ഒരു ഹോബി ആക്കിട്ട് അല്ലെങ്കിൽ കൂടുതൽ അധിക സമയം വീട്ടിൽ ഉള്ളവർക്ക് ഈ ഉപയോഗിക്കുന്ന ഒരു പറഞ്ഞിട്ടൊക്കെ സാധാരണക്കാൾ വ്യത്യസ്തമായിട്ട് ചെവി കണ്ണ് തല വെള്ളം അധിക സമയം നീന്തി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങള് ജലദോഷം സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടീട്ട് അടച്ച് പൂർണമായും നമുക്ക് അടച്ച് കെട്ടികൊണ്ടുള്ള ഒരു രീതിയിലുള്ള വേഷമാണ് ഉപയോഗിക്കുന്നത്